ഏറ്റവും മനോഹരമായ കാഴ്ച കണ്ട ഒരു ഹൈക്കിങ്ങെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോയപ്പോൾ മൂന്നാറിൽ ഒരു യാത്ര പോയി അപ്പം അവിടെ നിന്ന് അവരെന്നെ ഹൈക്കിങ്ങിനായിട്ട് മോണിങ്ങ് കൊണ്ടുപോയി ആ സമയത്ത് സൂര്യോദയം സൂര്യോദയം കാണാനായിട്ടാണ് ഞങ്ങളെ അവർ മെയിനായിട്ട് കൊണ്ടുപോയത് നല്ല ദൂരമുണ്ട് നല്ല ഒരു മണിക്കുറ് രണ്ട് മണിക്കൂർ ഒന്ന് ഒന്നൊന്നര മണിക്കൂർ എടുത്തു നമ്മൾ ആ ഹൈക്ക് ആ ഹൈക്ക് മലകൾ എല്ലാം താണ്ടി അങ്ങ് ഉയരങ്ങളിൽ എത്താനായിട്ട് സൂര്യനെയും കാണാനായിട്ട് നമുക്ക് പോകുന്ന വഴികളിൽ കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല എന്താ പറയുക നല്ല കുളിർമയേകുന്ന ഒരു യാത്രയായിരുന്നു അത് വെളുപ്പാൻ കാലത്ത് നമ്മൾ ഇങ്ങനെ പുതച്ച് തണുപ്പത്ത് ഇങ്ങനെ യാത്ര ചെയ്യണം യാത്രക്കിടയിൽ പല ബുദ്ധിമുട്ടുകൾ കാണും ചെറിയ ചെറിയ ജീവികളുടെ അവർ വന്ന് നമ്മുടെ കാലിൽ കടിക്കും പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ ആ നമ്മൾ ആ നടന്ന് നടന്ന് ആ മലമുകളിലൂടെ ഇങ്ങനെ പോകുമ്പം പ്രകൃതിയിലുള്ള പക്ഷികളുടെ ഓരോ സൗണ്ടും അല്ലെങ്കിൽ അവർ രാവിലെ പാട്ടു പാടുന്നതൊക്കെ നമുക്ക് ഭയങ്കര നല്ലൊരു സന്തോഷം നൽകുമായിരുന്നു ഇങ്ങനെ കിലോമീറ്റേഴ്സ് നടന്ന് നമ്മൾ ആ മലമുകളിൽ ചെന്ന് ചെന്നതിന് ശേഷം സൂര്യാസ്തമയം കണ്ടപ്പോൾ നമ്മൾ റിയലായിട്ട് ഞാനന്ന് ഫസ്റ്റ് ടൈം ആണ് സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നത് സൂര്യോദയിങ്ങനെ കാണുന്നത് ഉദിച്ചിങ്ങനെ വരുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ള സൂര്യനെയാണ് കാണുന്നത് നമ്മൾ നമ്മുടെ അടുത്താണ് സൂര്യൻ നിൽക്കുന്നതുപോലെ നമുക്ക് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അന്ന് മൂന്നാർ പോയപ്പോൾ ഉണ്ടായത്